ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കാരണം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർ ഇപ്പോൾ പുറമേ എവിടെയെങ്കിലുമൊക്കെ പോവുവാണെങ്കിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ പറയാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ നമ്മളെ എന്താണ് പറയുക ഇപ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവർ എന്താണ് പറയുക നമ്മുടെ സമൂഹത്തിലെ അംഗീകരിക്കപ്പെടാത്തൊരു അവസ്ഥയാണുള്ളത് ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു വെച്ചാൽ ചില എല്ലാവർക്കും ഒരേ പോലെ കിട്ടണം എന്നില്ല എല്ലാവരും ഒരേപോലെ പഠിപ്പി പഠിച്ച് എല്ലാം നേടണം എന്നൊന്നുമില്ലല്ലോ ഇപ്പോൾ ചിലർ കലക്ടർ ആവും ചിലർ പോലീസ് ആവും അങ്ങനെ പല കാര്യങ്ങളൊക്കെ നേടാറുണ്ട് അപ്പം നമ്മൾ വന്ന് വന്നിട്ട് നമ്മളിപ്പോൾ നല്ലവണ്ണം പഠിച്ച് നല്ല രീതിയിൽ എത്തുക കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചെ എല്ലാവർക്കും അങ്ങനെ എത്തിപ്പെടണം എന്നില്ല അപ്പം എല്ലാവരെയും നമ്മളിപ്പോൾ കളിയാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അവരെ അവഗണിക്കാണ്ടിരിക്കാം അവർക്കിപ്പം നമ്മളെപ്പോലെ എല്ലാവർക്കും ഒരേപോ ഒരേപോലെ കഴിവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചിലർക്ക് പഠിക്കാൻ പറ്റും ചിലർക്ക് പഠിക്കാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ നല്ലവണ്ണം നോക്കിയിട്ട് വേണം അവരോട് കാര്യങ്ങളൊക്കെ പറയാനും എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തുകൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം പഠിക്കാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അത്യാവശ്യം കഴിവ് ആക്കി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ